തീർച്ചയായും എന്റെ കാരണവരിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി പേരെക്കുറിച്ചും അങ്ങനെ നേതാക്കന്മാരായിട്ടും പിന്നെ അല്ലാതെ തന്നെ എന്താണ് ഒരോ പറയുക ഒരോ എന്താണ് പ്രദേശത്തെ തമ്പുരാക്കന്മാരോ അങ്ങനൊക്കെയും പറയാം അവരെക്കുറിച്ചു അങ്ങനെ അങ്ങനെ കേട്ടിട്ടുണ്ട് അവർ കൂടുതലും പഴയ അതായത് അവർ പറഞ്ഞ എന്റെ കാരണവന്മാർ പറഞ്ഞ രീതി വച്ച് നോക്കുകയാണെങ്കിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു അതായത് സ്ത്രീകൾക്ക് വേണ്ടിയാണ് കൂടുതലും ശ്രമിച്ചേക്കുന്നത് ഒരു അമ്മ തമ്പുരാട്ടി എന്ന് പറയാം യഥാർത്ഥ പേര് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷെ അമ്മ തമ്പുരാട്ടി എന്നാണ് അവിടെ പറയുക എല്ലാവരും പറയുന്നത് അതായത് സ്ത്രീകൾക്ക് പൊതു വഴിയിൽ നടക്കാനും അവരെ എഴുത്ത് വായന അവരിലേക്ക് കൊണ്ടു വരാനും പിന്നെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നത് പോലെ സമൂഹത്തിലേക്ക് പതിയെ അവരെ കൊണ്ട് വരാനായിട്ട് കുറേ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ അങ്ങനെ കുറച്ച് കഥകൾ അറിയാം അതേപോലെ തന്നെ നേതാക്കന്മാരും അതെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ നേതാക്കന്മാരായിട്ട് അങ്ങനെ സഹായം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രദേശം ഒരു പ്രദേശത്തിന്റെ ഭാഗമായിട്ടും അങ്ങനെ പ്രവർത്തിച്ച കുറേ പ്രവർത്തകരെയും തമ്പുരാട്ടിമാരും അങ്ങനെയുള്ള കുറച്ച് പേരുടെ കഥകളും അങ്ങനെയൊക്കെ കുറച്ചൊക്കെ അറിയാം പിന്നെ അല്ലാതെ പഠനപരമായിട്ടും കു റച്ചു കാര്യങ്ങൾ അങ്ങനെ പഠിച്ചു അങ്ങനെ കുറച്ച് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസം പിന്നെ സമൂഹത്തിൽ ഉന്നതിക്ക് വേണ്ടി ഐത്തമില്ലായ്മ അതൊക്കെ ചെയ്യാനൊക്കെയായിട്ട് അത് അങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ ചെയ്തേക്കുന്നതൊക്കെ ആയിട്ടാണ് എന്റെ പ്രദേശത്ത് ഞാൻ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ